പാരിസ്ഥിതമായിട്ട് നമുക്ക് വളരെ ലോലമായ പ്രദേശമാണ് പാലക്കാട് എന്ന് പറയണത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കുന്ന് മല അങ്ങനത്തെ രീതിയിലുള്ള ഏരിയകൾ പിന്നെ പുഴകള് അങ്ങനത്തെ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥതി സ്ഥലം അങ്ങനത്തെ പ്രദേശമാണ് നമുക്ക് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ എന്താ പറയുക ഡാം കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കെട്ടിവരുമ്പോൾ നമുക്ക് നദികളിലെ ഒക്കെ വെള്ളം വറ്റാനും അതായത് എള്ള പ്രദേശത്തെ ഈ നദിയില് നമുക്ക് സാധാരണ രീതിയിലത്തെ ഒഴുക്ക് വരാതിരിക്കുക പിന്നെ അതുപോലെ നമുക്ക് എന്താ പുതിയ ബിൽഡിംഗ് മലകള് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ മലകൾ നിരത്തേണ്ടി വരും അപ്പോൾ അവിടെ പാരിസ്ഥിതിയുമായിട്ട് പ്രശ്നം വരും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നെൽപ്പാടങ്ങൾ അങ്ങനത്തെയാണ് നമ്മുടെ നാടുകളില് ഇപ്പോൾ അതായത് കാർഷിക മേഖലയിൽ ഡിപ്പെൻഡ് ചെയ്ത ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവിടെ നമുക്ക് ബിൽഡിംഗും കാര്യങ്ങളും വന്ന് കഴിഞ്ഞാ കാർഷികമായിട്ടുള്ള ഉത്പാദനങ്ങൾ കമ്മിയാകും അങ്ങനെ കുറെ നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ എന്താ പറയുക ഈ വികസനത്തിൻ്റെ തടഞ്ഞ് നിർത്തുന്ന കുറെ പ്രശ്നങ്ങൾ നമുക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് വികസനം ആ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം പക്ഷെ നമ്മൾ എല്ലാ രീതിയിലും നമുക്ക് അത് പരിസ്ഥിതികമായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയെ പൂർണമായും പിന്തുണച്ചാലേ അല്ലെങ്കിൽ പരിസ്ഥിതി പൂർണമായും സഹകരിച്ചു കൊണ്ടുമാത്രമേ നമുക്ക് നമ്മുടെ ജില്ലയിൽ ചെയ്യാൻ പറ്റുള്ളൂ